ഫോട്ടോ എടുക്കാനായി നിങ്ങൾ വേറെ എവിടെ എങ്കിലും യാത്ര ചെയ്തിട്ടുണ്ടോ ഇന്ത്യയിലെ ഏതൊക്കെ ഭാഗത്താണ് ഫോട്ടോസ് എടുക്കാനായി നിങ്ങൾ സന്ദർശിച്ചിട്ടുള്ളത് ഇതാണെനിക്ക് ലഭിച്ചിട്ടുള്ള ചോദ്യം ഒന്നാമത്തേ കാര്യം എനിക്ക് ഫോട്ടോ എടുക്കുക വീഡിയോ എടുക്കുക എന്ന് പറയുന്നത് ഭയങ്കര ഇഷ്ടമായിട്ടുള്ള ഒരു ആളാണ് എൻ്റെ ഒരു പാഷൻ എന്ന് തന്നെ എന്നിട്ട് വേണമെങ്കിൽ പറയാം ഫോട്ടോഗ്രഫിയും വീഡിയോഗ്രഫിയും ഞാൻ ഒത്തിരി ഒത്തിരി എഞ്ചോയ് ചെയ്ത് ചെയ്യുന്ന ഒരു കാര്യവാണ് പക്ഷേ എന്നിരുന്നാലും എനിക്ക് അത് ചെയ്യാനായിട്ടുള്ള സംവിധാനങ്ങളൊന്നും തന്നെ ഇല്ല ഇപ്പം ഞാൻ നിലവിലത് ചെയ്യാനായിട്ടുള്ള സംവിധാനങ്ങള് മേടിക്കാനായിട്ടിരിക്കുകയാണ് പക്ഷേ ഞാൻ ട്രാവല് ചെയ്തിട്ടില്ല ഒന്നാമത്തേ കാര്യം എല്ലാം ഞങ്ങളുടെ വീടിനടുത്തുള്ള സ്ഥലത്തെല്ലാം വെച്ച് ഫോട്ടോ എടുക്കുകയല്ലാതെ വേറെ പുറത്ത് സ്ഥലങ്ങൾ പോയിട്ട് ട്രാവല് ചെയ്ത് ഫോട്ടോഗ്രാഫി കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല പിന്നെ എനിക്ക് പോകാൻ താല്പര്യമുള്ള സ്ഥലങ്ങളെവിടെയാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് ഹിമാചല് പോവാൻ താല്പര്യവാണ് എനിക്ക് ഗോവയിൽ ഗോവെലൊക്കേ ഗോവയിലെ ആളുകളുടെ കൾച്ചറുകൾ കൾച്ചറ് ഭയങ്കര രസമാണ് എന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ട് അപ്പം അവിടങ്ങളിൽ പോയി ഫോട്ടോ ഒക്കെ എടുക്കാൻ താല്പര്യവാണ് ഭയങ്കര താല്പര്യവാണ് പിന്നേ പിന്നെ ഹിമാചല് ജമ്മു കാശ്മീര് അങ്ങനത്തെ സ്ഥലങ്ങളിൽ പോകാൻ പിന്നെ ഓരോ ഇന്ത്യ എനിക്ക് എനിക്ക് ഇന്ത്യ ഫുള്ള് ട്രാവല് ചെയ്യണം എന്ന് ഭയങ്കര ആഗ്രഹമാണ് കാരണം ഓരോ ആൾക്കാരുടെ കൾച്ചറ് ഭയങ്കര വ്യത്യാസമാണ് ഇന്ത്യയിലെ ഇപ്പം കേരളത്തില് നമ്മള് എന്നും കേരളത്തില് കാണുന്ന കൾച്ചർ അല്ല വേറൊര് രാജ്യത്ത് അല്ലെങ്കിൽ വേറൊര് സ്ഥലത്ത് വേറൊര് സംസ്ഥാനത്ത് നമ്മള് ചെല്ലുമ്പം നമ്മള് കാണുന്നത് കൾച്ചറില് ചില സ്ഥലത്ത് കൾച്ചറില് നമുക്ക് ഭയങ്കരമായ് ഇഷ്ടപ്പെടുന്ന കൾച്ചറലായിരിക്കും എപ്പഴും അങ്ങനെ എനിക്ക് പല സ്ഥലങ്ങളിലും പോയി അവരുടെ കൾച്ചർ കാണുക അവരുടെ ഫോട്ടോസ്സും വീഡിയോസ്സും പകർത്തുക അത് സാമൂഹ്യ മാധ്യമങ്ങളിൽ എത്തിക്കുക എന്നുള്ളത് എനിക്ക് ഭയങ്കര താല്പര്യമുള്ള ഒരു കാര്യവാണ് അതുകൊണ്ട് തന്നെ എനിക്ക് ഈ പറഞ്ഞ പോലെ കശ്മീര് പുനെ ഗോവ ബോംബെ മുംബൈ അങ്ങനത്തെ ബോംബെ ഇപ്പം ഡൽഹി ഡൽഹിക്ക് എനിക്ക് പോകണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട് ഇതുവരെ പോകാൻ സാധിച്ചിട്ടില്ല അത് കൊണ്ട് തന്നെ അവടെയെല്ലാം പോകണം എന്ന് ഭയങ്കരമായിട്ടുള്ള ആഗ്രഹങ്ങളുണ്ട് പിന്നേ പറയാനായിട്ടാണെങ്കിൽ ആ അത്രയും ഒക്കെ സ്ഥലത്ത് പോകാനേ താൽപ്പര്യമുള്ളു